പാടുമ്പോൾ കൂടുപയോഗിക്കാൻ എനിക്കി കീബോഡാണ് കൂടുതലിഷ്ടം കീബോഡിനാണ് ഞാൻ ചെറുപ്പത്തിലെ ഞാൻ കീബോഡാണ് പഠിച്ചത് കീബോഡ് ഉപയോഗിച്ചു പാട്ടു പാടാൻ എനിക്കിഷ്ടമാണ് അത് ഉപയോഗിച്ചാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളും പാട്ടു പാടാൻ പോകുന്നത് ഉമ്മാ പാടും അതുപോലെ നമുക്ക് മ്യൂസിക്കെല്ലാം സെറ്റ് ചെയ്ത് കീബോഡിൽ പാടാനായിട്ട് നല്ല ഇതാണ് കീബോഡ് ഉപയോഗിച്ച് പള്ളിയിലാണെങ്കിലും പാട്ടു പാടുന്നത് അതു കേൾക്കാൻ തന്നെയൊരു ഭയങ്കര ഇതു രസമാണ് കീബോഡ് ഉപയോഗിച്ച് പാടും ഞാൻ പല സ്ഥലങ്ങളിലും പാടാം പോയിട്ടൂണ്ട് എനിക്കു പാട്ടു പാടാൻ കൂടുതലിഷ്ടവും ഈ കീബോഡ് തന്നെയാണ് കീബോഡിൽ നമ്മുടെ പാട്ടിൻ്റെ മ്യൂസിക് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു പാടാം പാടാൻ പറ്റുന്നതാണ് പാ പയെ പാട്ടു ഞാൻ ചെറുപ്പത്തിൽ പാട്ടു പഠിച്ചതാണ് എനിക്കീ കീബോഡ് പഠിച്ചതാണ് അപ്പം അതു പോലെ പാടാനുള്ള കഴിവും അപ്പോഴും കഴിവുണ്ട് അതുകൊണ്ട് കീബോഡ് ഉപയോഗിച്ച് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിലാണേപ്പോലും പാടുമ്പോഴത്തേക്കിന് കീബോഡിൻ്റെ ആ ഒരു മ്യൂ ഇത് പാട്ടിൻ്റെ ആ മ്യൂസിക്കില്ലാതെ പാടുന്ന കേൾക്കാൻ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ അപ്പോൾ മ്യൂസിക് ഉണ്ടേൽ മാത്രമെ ആ പാട്ടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളു പാട്ട് എപ്പോഴും കേൾക്കുന്നത് നമ്മുടെയൊക്കെ നല്ലതാണ് ഇപ്പം നമ്മുടെ മനസ്സിനെ ചെറുപ്പമാക്കുകയും നിർത്താനായിട്ട് പാട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നൊരിതാണ് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊ കാര്യങ്ങളൊക്കെ പോകാൻ സംഗീതം നമുക്ക് ഏറ്റവും നല്ല ഒരു എനർജി ഡ്രിങ്ക് പോലെയാണ് അതു പോലെ കീബോഡ് അതും മുമ്പിൽ ഇൻസ്ട്രുൻറ്റെ കീബോഡ് ഉപയോഗിച്ചുള്ള പാട്ടാണ് കൂടുതൽ നമ്മളെ അതിലേക്കു കൂടുതൽ ആ ആ വന്നാലെ കൂടുതലും മനുഷ്യരെ അതിലേക്ക് ആകർഷിക്കുകയുള്ളു കീബോഡിലെ നമുക്ക് ചെറുപ്പം തൊട്ടേ കീബോഡ് ഉപയോഗിച്ച് പഠിച്ചു ശീലിച്ചതു കൊണ്ട് കീബോഡ് ഉപയോഗിച്ചു പാടുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം കോ പാട്ട് പാടും പാട്ട് പാടാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഉപകരണങ്ങളോടു കൂടി വേണം പാടാനായിട്ട് അപ്പോൾ അതുപോലെ പാ അല്ലെങ്കിൽ പാട്ടിൻ്റെ സ ഭംഗി തന്നെ ഇല്ലാതെ ആയിപ്പോകും അതു കൊണ്ട് പാട്ടു പാടുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ചു കൊണ്ടു വേണം നമ്മൾ പാടാനായിട്ട് പാ